പത്താം ക്ലാസ് കഴിഞ്ഞ് പാസ്സായി എന്ന നിലയിൽ എനിക്ക് വീട്ടുകാർ മേടിച്ചു തന്ന ഫോണിൽ ആദ്യമായി കയറ്റിയ ഗെയിം ആണ് പബ്ജി പബ്ജി എന്ന് പറയണത് ഒരു തേർഡ് പേഴ്സൺ ഓപ്പൺ വേൾഡ് ബാറ്റിൽ റോയൽ ഗെയിം ആണ് ഈ ഗെയിമിൽ നമ്മളൊരു ടീമോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഡുവോയോ ആയി കളിക്കുന്നു ടീമായി കളിക്കാൻ ഈ ഗെയിം നല്ല രസമാണ് ടീമായി കളിക്കുമ്പോൾ നമുക്ക് ഒത്തുചേർന്ന് സംസാരിക്കാനും ഒപ്പം കോഡിനേറ്റ് ചെയ്തിട്ട് എനിമീസിനെ കൊല്ലാനും എല്ലാത്തിനുമായി പറ്റുന്നു ഒരു സ്കോഡ് നമ്മൾ മൂന്നു പേരെ ചേർത്ത് നാല് പേരായി ഒരു സ്കോഡായിട്ടാണ് കളിക്കുന്നത് ഒരു മാപ്പിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് സ്കോഡ് വരുന്നു നൂറുപേരാകാം ഇറാങ്ങൾ എന്ന മേപ്പിൽ ഞങ്ങൾ പല പ്രാവിശ്യം ഇറങ്ങി കളിക്കുന്നുണ്ട് ഇറാങ്ങൾ എന്ന മേപ്പിൽ മുഖ്യ ലക്ഷ്യം എന്നു വെച്ചാൽ ഗണ്ണുകളും ബോംബും അതുപോലെ വെസ്റ്റുകളും ആവശ്യമായ മരുന്നുകളും ഡ്രിങ്കുകളും ശേഖരിച്ച് എനിമീസിനെ കൊല്ലുന്നു അങ്ങനെ അവസാനം വരെ നിക്കുന്ന ടീം ജയിക്കുന്നു അങ്ങനെ ബാക്കി ഉള്ള ടീമുകളെ എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം അങ്ങനെ മുഖ്യ ലക്ഷ്യത്തിൽ അവസാനം ജയിക്കുമ്പോൾ ഞങ്ങൾക്ക് പഴയ എല്ലാവർക്കും വിവിധമായ സ്ലിൽസിനെ കിട്ടുന്നു കൂട്ടുകാർ ചേർന്ന് നന്നായി കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് മര്യാദയ്ക്ക് പോകുന്നുള്ളു ഒന്നുമറിയാതെ തോന്നിയപോലെ പോയാൽ അധികവും മരണത്തിൽപ്പെടുന്നു ആദ്യമിറങ്ങി മര്യാദയ്ക്ക് ലൂട്ട് ചെയ്ത് ഗണ്ണ് കിട്ടി എനിമീസിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ ഭാഗ്യം ഞാനും എൻ്റെ കൂട്ടുകാരും അധികവും കുറേ നേരവും കളിച്ചിട്ടുള്ള ഗെയിം ആണിത് എല്ലാവരും ഇവിടെ ഒത്തു ചേർന്ന് വീടുകളിൽ ഇരുന്ന് ഒത്തുകൂടാനൊരവസരമാണിത് ദൂരെ ദൂരെ ഉള്ള കൂട്ടുകാരെ ഒരുമിച്ച് ലിങ്ക് ചെയ്യുന്നു അതിനാൽ എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിമിൽ എനിക്ക് ഗെയിമിൽ നിന്നും പരിചയപ്പെട്ട കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്

മെഷീൻ ഗൺസ് എയർ ഗൺസ് അതുപോലെ പലതരം ഗൺസ്സുകളുണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കൈയ്യില് ഒന്നുമുണ്ടാവില്ല ഇറങ്ങിക്കഴിഞ്ഞ് ശേഖരിച്ചിട്ട് വേണം ഇതേപോലെ വെസ്റ്റും ഹെൽമെറ്റും ഉപയോഗിക്കുന്നു ഡേമേജ് കുറവായി നോക്കുവാൻ ഈ ഗെയിമിൽ വണ്ടികളുണ്ട് വണ്ടികൾ വെച്ച് ഞങ്ങൾ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേയ്ക്ക് പോകുന്നു ആദ്യം ഗെയിമിൽ എറങ്ങിക്കഴിഞ്ഞാൽ സോണുകൾ വരും വട്ടത്തിലുള്ള ഈ സോണുകളിന്റെ ഉള്ളിൽ നിൽക്കണം ഞങ്ങൾ ഈ സോണുകളെന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുക ഹെൽത്ത് പോകാൻ തുടങ്ങുന്നു ഇറാങ്കിൾ മേപ്പ് എട്ടു കിലോമീറ്റർ എട്ടു കിലോമീറ്റർ എന്നൊരു ചതുര വലുപ്പത്തിലാണ് അതിനാൽ ഭയങ്കര വലുപ്പമുള്ളതുമാണ് ഇറാങ്കിൾ എന്ന മേപ്പിൽ പലതരം ചെറിയ ടൗൺസും അതേപോലെ ചെറിയ ബിൾഡിങ്ങ്സും ഉണ്ടാകുന്നു ഈ ബിൽഡിങ്ങ്സിന്റെ ഉള്ളിൽ ആണ് ഈ വിവിധമായ ലൂട്ടും കാര്യങ്ങളും ഗണ്ണും ഓരോ സ്ഥലത്തും ഓരോപോലെ ആണ് ചില സ്ഥലത്ത് കുറേ ഗണ്ണുകൾ കിട്ടും ചില സ്ഥലത്ത് കുറവ് ലൂട്ട് കിട്ടും അതിനനുസരിച്ച് എനിമീസ് കൂടുതലും ഉണ്ടാവും കുറവും ഉണ്ടാകും ഇങ്ങനെ ഉള്ള ഏരിയകൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ കാരണം പെട്ടെന്ന് കളി കഴിയാം ഒരു പ്രാവശ്യം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റിവൈവ് ചെയ്യാൻ കഷ്ടമാണ് ചില സ്ഥലങ്ങളത് മാത്രമാണ് റിവൈവ് ചെയ്യാൻ പറ്റൂ അതിനാലെല്ലാം ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഒപ്പം ഉള്ളവരുടെ കഴിവും കണക്കുകൂട്ടിയിട്ട് വേണം കളിയ്ക്കാൻ ഒരോരുത്തർക്കും ഓരോ തര യൂസ് ആവും എല്ലാവർക്കും എല്ലാ തര ഗണ്ണും ഉപയോഗിക്കാൻ പറ്റി എന്നു വരണമെന്നില്ല ഓരോ ഗണ്ണുകൾക്കും ഓരോരോ പവറാണ് ഓരോരോ ഗണ്ണുകളുടെ പവർ ശ്രദ്ധിച്ചു വേണം ഞങ്ങളുപയോഗിക്കാൻ ഞങ്ങള് യൂ എൻ ബി ഗൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഫയർ ചെയ്യാനും റീകോൾ കണ്ട്രോൾ ചെയ്യാനും എളുപ്പമാണ് പഷെ ഡേമേജ് കുറവാണ് അത് ബുള്ളറ്റ് ട്രൂപ്പും കുറവാണ് കൂടുതലാണ് അതിനാൽ നല്ല ദൂരെ ഉള്ള എനിമീസിനെ ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റുന്നതല്ല അതേ നേരത്ത് എ കെ എം ആണെങ്കിൽ ഭയങ്കര റീക്കോയിലാണ് പക്ഷേ നല്ല ഡാമേജ് ഉണ്ട് പെട്ടെന്നൊരെനിമിയെ ക്ലോസ് റേയ്ഞ്ചിൽ കൊല്ലാൻ അടിപൊളി എ കെ എമ്മാണ് നല്ല ദൂരെ ഉള്ള എനിമീസിനെ കൊല്ലാൻ ഞങ്ങൾ സ്നൈപ്പർ ഗണ്ണുകൾ ഉപയോഗിക്കുന്നു അതിലേറ്റവും ഫേമസ് ആയതാണ് കാർ നയന്റി എയ്റ്റ് എ ഡബ്ലൂ എമ്മും ഈ വക ഗണ്ണുകൾ ഞങ്ങൾ നന്നായി ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള പലതര രീതികൾ പലതര ടാറ്റിക്സും കോമ്പിനേഷൻസും പ്ലാനിങ്ങും കോർഡിനേഷനും എല്ലാം ഉൾപ്പെട്ടതാണ് ഈ ഗെയിം ഇങ്ങനെ ഞങ്ങൾ കളിക്കുന്നു